ഇപ്പം നമ്മൾ കടലിൽപ്പോയി മീൻ പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും വെളുപ്പിനാണ് അതായത് ബോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ കടലിലേക്ക് പോകുന്നത് അവിടെപ്പോയിട്ട് നമ്മളെന്തായാലും വരുമ്പോൾ തന്നെ ഏകദേശം നല്ലൊരു സമയം കാര്യങ്ങളൊക്കെ ആകും കാരണമൊരു ഉച്ച ആ ടൈമൊക്കെ ആകും അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും പെട്ടെന്ന് വരാനാണെങ്കിൽ നമ്മൾ എന്താ പറയുക നമുക്ക് രാത്രി തന്നെ പോകേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രാത്രിയാണ് കൂടുതലായിട്ട് മീനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുക ചിലപ്പം രാവിലെ വെളുപ്പിനൊക്കെ പോയിട്ട് നമ്മളൊരു ഏഴ് എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എത്താൻ വേണ്ടി സാധിക്കും പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഉച്ചയൊക്കെ ആ ടൈമിലൊക്കെ ആകും കാരണം മീൻ ചിലപ്പോൾ നമുക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടാവുകയുള്ളു അപ്പോൾ നമ്മൾ വെറുതെ പോയിട്ട് വരുന്നതു പോലെയാകും ഇത്രയും പേർ പോകുന്നതല്ലേ അപ്പോൾ അവർക്കുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടാൻവേണ്ടിയിട്ട് നമ്മൾ കുറച്ചു നേ രാത്രിയൊക്കെ പോകുകയാണെങ്കിൽ കുറേയധികം മീനിനെയൊക്കെ പിടിച്ചിട്ട് നമുക്ക് വരാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം അതുനമ്മൾ ആദ്യം നമ്മൾ അവിടെ കൊണ്ടു വന്നു ഇറക്കി അവർ ഇപ്പം പെണ്ണുങ്ങളുണ്ടാകും അപ്പോൾ അവർ കൂടുതലായിട്ട് ഈ മീനൊക്കെ തരംതിരിച്ച് വലുതും ചെറുതും പിന്നെ എന്താ പറയുക ഇപ്പോൾ ഓരോ തരത്തിലുണ്ടാകും മത്തി ഉണ്ടാകും അയില ഉണ്ടാകും അപ്പോൾ അതൊക്കെ വേറെ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് എല്ലാം ഒന്നിച്ചാക്കി അവരാണ് കൂടുതലായിട്ടും ചന്തയിലേക്കൊക്കെ ചന്തയിലേക്ക് കൊട്ടയിൽ കൊണ്ടു പോയിട്ട് അല്ലെങ്കിൽ വണ്ടിയിൽ കയറ്റിവിടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കുക അവിടെ ചെന്നിട്ടാണ് ഇവർ വിൽക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്